ആ ആയിക്കോട്ടെ മാഡം പറഞ്ഞോളൂ ആ ഓക്കെ ഞാൻ എങ്ങനെയാണ് മാഡത്തിനെ ഹെല്പ് ചെയ്യേണ്ടത് ആയിക്കോട്ടെ മാഡം ആ ടു വീലർ ഇപ്പോൾ നമുക്ക് ട്രിപ്പിൾ നയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് പെർ ഡേ ട്രിപ്പിൾ നയൻ തൊട്ട് ടു വീലേഴ്സ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്

അതിപ്പോൾ നമ്മൾ വെഹിക്കിൾ ചാർജ് മാത്രമാണ് പറഞ്ഞത് അതായത് വണ്ടിക്ക് നമ്മൾ ഇത്ര വെച്ചാണ് ഏറ്റവും ലോ വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ വണ്ടി നമ്മൾ തരുമ്പോൾ ഒരു വൺ ലിറ്റർ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഒക്കെ അതിനകത്ത് എണ്ണയുണ്ടാവും പിന്നെ നിങ്ങൾ അതിൽ കൂടുതൽ ഓടുന്നതിനനുസരിച്ച് നിങ്ങൾ പേ ചെയ്യണം നിങ്ങൾ പെട്രോൾ അടിക്കേണ്ടി വരും ആ നമുക്ക് വയനാട്ടിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തിനെ പറ്റിയും പരിചയമുണ്ട് മാഡം അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഒരു ഗൈഡിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം താമസം നമുക്ക് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരാം ആ മാഡത്തിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് ഉള്ളതിന് നമ്മൾ ചെയ്യും അത് എങ്ങനെ ആണെന്ന് വെച്ചാൽ മാഡത്തിൻ്റെ ബഡ്ജറ്റ് പോലെ ചെയ്ത് തരാം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അങ്ങനെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോക്കാം ആ തൗസൻഡ് ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കാം നിങ്ങൾ അങ്ങനെ സ്റ്റാർ പ്രോപ്പർട്ടി ഒക്കെയാണെങ്കിൽ അത്യാവശ്യം പേയ്മെന്റ് വെണ്ടിവരും ലോക്കൽ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് തരാൻ പറ്റും അങ്ങനെ ചെറിയ പൈസയ്ക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് മഴയൊക്കെ കുറഞ്ഞു മാഡം അപ്പോൾ എല്ലാ സ്ഥലവും ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ ട്രെക്കിങ്ങിനായാലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ ഓ എല്ലാ സ്ഥലവും ഓപ്പൺ ആയിട്ടുണ്ട്

ഇല്ല മാഡം എപ്പോൾ വന്നാലും നമുക്ക് നമുക്ക് കുറേ വണ്ടികൾ ഉള്ളതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് വേണ്ട വണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്ത് തരാം അങ്ങനെ പ്രശ്നം ഒന്നും ഇല്ല ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി മാഡം ഓക്കെ താങ്ക് യൂ